ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്ട് മൊബൈൽ ഫോണാണ് ഈ ഈ പ്രോഡക്ട് എനിക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചാണ് ഞാൻ എടുത്തത് ബട്ട് ഇപ്പോൾ തീരെത്തന്നെ യൂസ്ഫുള്ളല്ല ക്യാമറയൊക്കെ തീരത്തന്നെ ക്ലാരിറ്റി ഇല്ല എടുക്കുന്ന പിക്ചർസൊക്കെ ഭയങ്കര ബ്ലർഡ് ആയിട്ടാണ് കാണുന്നത് അതുപോലെതന്നെ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് വെറും പതിനഞ്ച് ദിവസമായിട്ടേ ഉള്ളൂ അപ്പോൾത്തന്നെ പെട്ടന്നെന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആകും ഓൺ ആവും പെട്ടന്ന് സ്വിച്ച് ഓഫ് ഓൺ സ്വിച്ച് ഓഫ് ആവും ഓഫ് ആകും അങ്ങനൊക്കെ ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത് പിന്നേ പതിനഞ്ച് ദിവസംകൊണ്ട് ആദ്യമൊക്കെ നല്ല ക്ലാരിറ്റിയുണ്ടായിന്നു സെവൺ ക്ലാരിറ്റിയൊക്കെ ബട്ട് ഇപ്പോൾ ഇപ്പോൾ ഈ കുറച്ച് ദിവസംകൊണ്ട് അതൊന്നും ഇല്ല പിന്നെ എനിക്ക് ഗേയ്മിങ്ങൊന്നും തീരത്തന്നെ ചെയ്യാൻ പറ്റുന്നില്ല ഫോണൊക്കെ പെട്ടന്ന് തന്നെ ഹീറ്റാവുകയാണ് അത്രയും തന്നെ യൂസ് ഫുള്ളല്ല ഈ ഫോണെന്നു പറഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യുമ്പോൾ ആണെങ്കിലും ഭയങ്കര ലാഗായിട്ടാണ് ചാർജൊക്കെ കയറുന്നത്